ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് മുൻപിലൂടെ കാണുന്നു

എന്നിരുന്നാലും ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം നൽകാത്ത പല സ്ഥാപനങ്ങളും ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഇന്നും നിലകൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു